ആ ഹാ ആ ഇത് ആമസോണിന്നല്ലേ ആ ഞാൻ ഇപ്പം വീട്ടിലില്ലായിരുന്നല്ലോ എൻ്റെ ഒരു ആ പറഞ്ഞോ എൻ്റെ ഒരു നെയ്ബറ്ണ്ട് അവർ അവർ സ്ഥലത്ത് കാണത്തില്ലായിരിക്കും പക്ഷേ അവരുടെ അവിടെയൊരു സെഫുണ്ട് സേഫായിട്ട് വെക്കാനൊരു ഒരു ഷെൽഫ് പോലുണ്ട് പുറത്ത് അപ്പം അതിന്റകത്തോ അത് നിങ്ങളുടെ ഓഫീസി വന്ന് ഞാൻ പിന്നെ സൈൻ മേടിച്ചാൽ പോരെ സൈൻ ചെയ്താൽ പോരെ ആ ഏതാ എഴുതി തരേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റേതാന്നോ ആ ഹ ഹ കുഴപ്പമില്ല കുഴപ്പമില്ല അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല അപ്പം ഓക്കേ ഞാൻ ഇപ്പം എൻ്റെ നെയ്ബറിനൊന്ന് മെസേജ് ചെയ്തായിരുന്നു അതിന്റെ അപ്പുറത്തൊരു മഞ്ഞ വീട് കണ്ടോ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അതിന്റെ അപ്പുറത്തൊരു പച്ച വീടുണ്ട് അവിടെ അവിടെ അവിടെ ആളില്ല അവിടെ ഓൾസോ കയറുമ്പോൾ സൂക്ഷിക്കണം മുമ്പിൽത്തെ ഗേയ്റ്റ് വഴി കയറി കഴിഞ്ഞാൽ പട്ടിയുണ്ട് പട്ടി ഓടിക്കും അത് കൊണ്ട്

അപ്പം അപ്പോൾ പുറകിൽ കൂടെ കയറുന്നതായിരിക്കും അനിവാര്യം അപ്പം പുറകിലത്തെ ഗേയ്റ്റ് എപ്പോഴും ഓപ്പണാ ഇങ്ങനെ പുറകിൽ തന്നെയാണ് ഷെൽഫും പട്ടി പുറകോട്ട് ചെല്ലത്തില്ല അതിന് അതിനോടൊരു ഗ്രിഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ആ എന്താ ഒരു കാര്യം ചെയ്യ് പുറകിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ പുറകിലത്തെ ഗേയ്റ്റ് തുറന്നു കിടക്കുവാണ് അപ്പോൾ അവിടെ കയറി ചെന്നിട്ട് അവിടെയൊരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ കാർ ഷെഡുണ്ട് കാർ ഷെഡിൽ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്തേക്കുന്നതിന്റെ ഫ്രണ്ടിലായിട്ടൊരു ഒരു ഷെൽഫുണ്ട് ഷൂ റാക്കൊണ്ട് ആ ഷൂ റാക്ക് തുറന്നിട്ട് അതിൻ്റെ ആ ഷൂ റാക്കിൻ്റെകത്ത് തുറന്ന് കഴിയുമ്പം അതിൻ്റെ താഴെ വേറൊരു കബോഡുണ്ട് ആ കബോഡിൽ വെച്ചാൽ മതി ആ കബോഡിൻ്റെ ഒരു കീയൊണ്ട് ആ കീ ഞാൻ വേണേൽ ഒരാളുടെ കയ്യിൽ കൊടുത്തയക്കാം ഒരു രണ്ടു മിനിറ്റ് താമസം ഉണ്ടാകും അപ്പുറത്തെ വീട്ടിലെയാണ് ഇല്ലില്ല രണ്ട് മിനിറ്റ് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ജെസ്റ്റ്ങ്ങോട്ട് വന്നാൽ മതി ഓക്കേ അപ്പം എങ്ങനാണ് കാര്യങ്ങൾ മനസ്സിലായോ ഞാൻ പേമെൻറ്റ് ചെയ്തായിരുന്നു ചെയ്തില്ലായിരുന്നോ അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നെയ്ബറിൻ്റ കയ്യിൽ കൊടുത്ത് വിടാം

ഉണ്ട് ഉണ്ട് ഓക്കേ ഓക്കേ ഓക്കേ എന്നാ എന്നാ ഓക്കേ നെയ്ബറവിടെ വന്നോ നെയ്ബറ് വന്നെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെയ്ബറ് വന്നോ നെയ്ബറായിരിക്കും ഒരു വണ്ണമുള്ള പുള്ളിയാണോ അതെ അതെ അത് നെയ്ബറാ

ആ പുറകിലത്തെ ഗേയ്റ്റ് ഫ്രണ്ടിൽത്തെ ഗെയ്റ്റിക്കൂടെ പോയാൽ പട്ടി കടിക്കും

അതെ അതെ വീട്ടിൽ ആരുമില്ലല്ലോ അപ്പം പട്ടിയെ അഴിച്ച് വിട്ടേക്കുവാണ് ഇല്ലില്ലില്ല പുറകിൽ മറ്റെ സെൻസി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പട്ടി ചാടി വരത്തില്ല അത് ഇത് പുറകിലത്തെ ഗേയ്റ്റ് എന്ന് പറയുമ്പം ഈ ഗേയ്റ്റ്ന്റെ കണ്ടോ അതിൻ്റെ സൈഡ്ല് അകത്തോട്ടൊരു വഴി കണ്ടോ അതിലെ ചെന്നിട്ട് ലെഫ്റ്റ്ടുത്തിട്ട് അകത്തൊരു ഗേയ്റ്റ് കാണാം ആ ഗേയ്റ്റ് വഴി കയറി ചെന്നാൽ മതി ഓക്കേ ആ ഓക്കേ അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ അത്രയും ഓക്കേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കേ ഞാൻ അവിടെ മെയിൻ ഓഫീസിൽ വന്ന് സൈൻ ചെയ്തോളാം ഓക്കേ ഓക്കേ ശരി താങ്ക് യൂ